ഉത്സവങ്ങൾ മതപരിപാടികൾ അങ്ങനെത്തെ കാര്യത്തിനൊന്നും ഞാൻ ഇതുവരെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കാനും അതിന് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കലോ അതിന് നിൽക്കലോ ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കി വിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഖുറാൻ ഓതാൻ പറ്റും നിസ്ക്കരിക്കാൻ പറ്റും ഇങ്ങനെയുള്ളതൊക്കെ പറ്റുക അപ്പോൾ അത് ഖുറാൻ ഓതും നിസ്കരിക്കും അങ്ങനെ ഉള്ള നോൽമ്പ് നോൽക്കും അതൊക്കെ ചെയ്യും വിഗ്രഹങ്ങളെ ഉണ്ടാക്കലും അത് വിൽക്കലും അങ്ങനെ പൈസ അങ്ങനെ പൈസ ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടുതന്നെ അങ്ങനെത്തെ പരിപാടികൾക്കും പോകലും ഇല്ല പിന്നെ അങ്ങനെത്തെ വിഗ്രഹങ്ങളെ വാങ്ങലും ഇല്ല ചെറിയ ചെറിയ പതിവുകളും വാങ്ങലില്ല പിന്നെ കുട്ടികൾക്ക് പാവക്കുട്ടികളെ വാങ്ങലുണ്ട് അതിന് അതും ചെറിയ ചെറിയ പാവക്കുട്ടികളെ വാങ്ങൽ വലിയ വലിയ പാവക്കുട്ടികളെയൊന്നും ഞങ്ങൾ വാങ്ങലില്ല